വയനാട് ജില്ല എന്നു പറയുന്നത് പഴശ്ശിരാജയുടെ ഒരു പ്രദേശമാണ് എന്നാണ് എല്ലായിടത്തും അറിയപ്പെടുന്നത് പഴശ്ശിരാജയുടെ മൃതദേഹം വയനാട് ജില്ലയിലെ മാനന്തവാടി ഭാഗത്താണ് അടക്കം ചെയ്തിട്ടുള്ളത് അതുകൊണ്ടുതന്നെ വയനാട് ജില്ല ഈ പേരിൽ പ്രശസ്തമാണ് പിന്നെ കൂടിയാട്ടം കയർ മുള കരകൗശല വസ്തുക്കൾ എന്നിവയൊക്കെക്കൊണ്ട് നമ്മുടെ വയനാട് നാട്ടിലെ കുറച്ച് വ്യത്യസ്തമാണ് നെല്ല് ഉല്പാദിപ്പിക്കുന്നുണ്ടിവിടെ കാപ്പി കുരുമുളക് അങ്ങനത്തേതുപോലത്തെ സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ നമ്മുടെ ഇവിടെയാണ് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് പിന്നെ തലമുറകളായി കൈകാര്യം ചെയ്തു പോകുന്ന തെയ്യം അതുപോലെത്തെ അനുഷ്ഠാന കലകളൊക്കെ ഇവിടെ ഉണ്ട് ഈ എസ് ടി വിഭാഗത്തിൽപ്പെടുന്നവരാണ് ഇവിടെ കൂടുതലും വിഭാഗങ്ങൾ അപ്പോൾ അവരുടെ ഇടയിൽ തന്നെ കുറേ അനുഷ്ഠാന കലകൾ അവരുടേതായ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് അത് തലമുറകളായി കൈമാറി വരുന്ന കാര്യങ്ങളാണ്